പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാല് പഴയ ഗാനങ്ങള് കുറച്ച് നമുക്ക് കേള്ക്കാന് കുറച്ച് നല്ലതായിരുന്നു പുതിയ ഗാനങ്ങള് കേള്ക്കാന് നല്ലതല്ല എന്നല്ല പറയുന്നത് ചില പാട്ടുകളൊക്കെ ഇപ്പോൾ പുതിയ അത് രചിക്കുന്നതാണെങ്കിലും അതിലുള്ള എഴുത്തും മറ്റു കാര്യങ്ങളുവൊക്കെ നമുക്ക് ചില വാ വാക്കുകള് പോലും അമിതമായിട്ട് മനസിലാക്കാന് ചില സമയ ചില ചില പാട്ടുകളൊന്നും സാധിക്കുന്നില്ല ചിലതിനകത്ത് തുടക്കം തന്നെ ഒരൂ പ്രത്യേക തരത്തിലാണ് പാട്ടുകളുടെ അതുപോലെ തന്നെ ഈ ഒര് ഇടിപ്പും മറ്റു കാര്യങ്ങളില് ഇൻസ്രുമൻസിന്റെ കൂവലും ഇതും എല്ലാം കൂടെ വരുമ്പോൾ ഒരു ചില പാട്ടുകള് നമുക്ക് തിരിഞ്ഞ് തന്നെ കിട്ടുന്നില്ല പിന്നെ പലവട്ടം കേട്ട് കഴിഞ്ഞാൽ മാത്രവാണ് പക്ഷെ പഴയ ഗാനങ്ങള് എന്ന് വെച്ചാൽ നമുക്ക് കേൾക്കുമ്പോളെ നമുക്ക് ക്ലിക്ക് ചെയ്യുവായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മള് പഠിക്കുവാന് സാധിക്കും നല്ല നല്ല പാട്ടുകളാണത് പാടുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ പാട്ടിലും ഓരോ അര്ത്ഥങ്ങള് നമുക്കെത്രയും പെട്ടെന്ന് ഇപ്പോന്ന് വെച്ചാൽ പുതിയ തരത്തിലുള്ള വേട്സുകളും പദങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പാട്ട്കള് വരുമ്പം അതിനൊരര്ത്ഥം തന്നെ പക്ഷേ നമ്മള് പല ഒരു അന്പത് പ്രാ പത്ത് ഇരുപതും ഇരുപത്തഞ്ചും പ്രാവശ്യം കേട്ടാല് മാത്രമേ അത് ഒന്ന് മനസ്സിലായി വരുന്നുള്ളൂ അങ്ങനെ രണ്ട് വ്യത്യാസം ഇതിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നുണ്ട് ഈ പഴയ ഗാനങ്ങളും പുതിയ ഗാനങ്ങളും ആയിട്ടുള്ള വ്യത്യാസം